കേരളത്തിൽ കൂടുതലായും ക്രിക്കറ്റ് ആണ് നടത്താൻ ഉള്ളത് ടൂർണമെൻറ്റുകളിലാണ് നിങ്ങളുടെ നമ്മുടെ പ്രദേശത്തൊരുപാട് നമ്മൾ തന്നെയൊരു ഒരു ടൂർണമെൻറ്റായെടുത്ത് കുട്ടികൾക്കുവേണ്ടി നമ്മളൾ നാ നടത്തിക്കാറുണ്ട് അണ്ടർ എയ്റ്റീൻ എയ്റ്റീനെന്നു പറഞ്ഞാൽ പതിനെട്ടുവയസ്സിനു താരമുള്ള താഴ പ്രായമുള്ള കുട്ടികൾക്കുവേണ്ടിയുള്ളൊരു ടൂർണമെൻറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കേരളത്തിൽ നടന്നുവരാറുണ്ട് ഈയിടക്കു തന്നെ ഒരാഴ്ച മുൻപു തന്നെ നമ്മൾ ഇവിടെ ഒരു സ്ഥലത്തൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു ഒരു പയിനെട്ടു വയസ്സിനു താഴെയുള്ള കുട്ടികളുടെ എല്ലാവരുംകൂടി ചേർന്നുള്ളൊരു ടൂർണമെൻറ്റ് അതെല്ലാവരുംകൂടി ഇപ്പോൾ ഒരു ടീം കപ്പടിച്ചു സെക്കൻഡിന് നമ്മൾ പ്രൈസ് കൊടുത്തു ഫർസ്റ്റിന് ട്രോഫി കൊടുത്തു അവർ അതവർക്കൊരു പ്രോത്സാഹനമാണ് ദേശീയ അന്തർദേശീയ തലത്തിൽ നടക്കാറുള്ളത് നടത്താറുള്ള കുറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരത് ചെയ്യുന്നുണ്ട് അവർ നല്ലതു പോലെ ഇപ്പോൾ ഉള്ള ടീമുകൾക്ക് പോകാം അതുപോലെതന്നെ നമ്മൾ നമ്മളെകൊണ്ട് പറ്റാകുന്നരീതിയിൽ നമ്മൾ കൊച്ചുകുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാമെന്നും ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് ട്രെയിനിങ്ങുണ്ട് ടർഫുകൾ ട്രെയിനിങ്ങുണ്ട് ഇപ്പോൾ അടുത്തടുത്ത് എല്ലായ്പ്പോഴും എല്ലാ സ്ഥലത്തും ഒരു ടർഫ് വീതമുണ്ട് അപ്പോൾ അതു തന്നെയൊരു സ്പോർട്സിനു വലിയൊരു പുരോഗതിക്ക് കാര്യമാണ് കാര്യം വലിയൊരു കാര്യമാണത് ഒരുപാടു പേർ ഈ പ്രായത്തിലും ജനങ്ങളിൽ പങ്കെടുക്കുക ഒരുപാടു പേർ ഈ പ്രായത്തിലും കളിക്കുന്നവരുണ്ട് നമ്മൾ ഒരു ലീഗ് തന്നെ ഉണ്ട് ഐ എസ് എല്ലെന്നു പറയണ പോലെ അതേപോലൊരു ലീഗ് ഈ കൊ കേരളത്തിലും ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് ഒരു ഒരു പ്രദേശത്തുവീതം നടക്കുന്നുണ്ട് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്